അപ്പോൾ എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഡ്രൈവറാണ് ഡ്രൈവർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ടുള്ള എന്റെ ഒരു ഉപജീവനമാർഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അന്നന്നേരം കിട്ടുന്ന പൈസയാണ് നമുക്ക് ഒരു മുതൽ കൂട്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം നമുക്ക് വേറെ പൈസയോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഒരാൾ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ നേടി ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാല് അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം ആണ് അതായത് മാസം ഒരു സാലറിയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക പക്ഷേ നമുക്കങ്ങനെയൊന്നുമല്ല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നന്ന് ഒരു പത്തു രൂപയാണെങ്കിൽ പത്ത് രൂപേൻ്റെ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണ് കാരണം ഈ വലിയ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തു രൂപയൊന്നും വലിയ ഒന്നല്ല പക്ഷേ നമുക്കതൊക്കെ ഒരു വലിയൊരു പൈസയാണ് കാരണം നമുക്കെന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്ന ഒരു പത്ത് രൂപേൻ്റെ ബേസിലായിരിക്കും നമുക്കന്നത്തെ ഒരോട്ടം തന്നെ ചിലപ്പോൾ ഉണ്ടാവുകയെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ കൈ നീട്ടം കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഉള്ളത് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ജോലി തന്നെ തിരഞ്ഞെടുക്കാനുള്ള ആഗ്രഹം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കീ ജോലീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിലോടാം ഇല്ലെങ്കിൽ വേണ്ട വേണമെങ്കിൽ ഓടിയാൽ മതി നമുക്കങ്ങനെ ആരുടേയും കാൽ പിടിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവുമിതിനില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ഓടാം നമ്മള് പിന്നെ ആരുടേയും കാൽച്ചുവട്ടിലൊന്നുമല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വേണമെങ്കിൽ പൈസ മതി അങ്ങനത്തെ ഒരു മൈൻഡിലായത് കൊണ്ടാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം